യോഗയിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആസനം ശവാസനമാണ് പിന്നെ ശലഭാസനം വിപരീത ശലഭാസനം ഇഷ്ടപ്പെട്ടതായിട്ടിപ്പോള് ഓര്മ വരുന്ന അത്രേ ഉള്ളു കാരണം ഇപ്പോള് യോഗേന്നും അങ്ങനെ ചെയ്യാറില്ല പണ്ട് സ്കൂളില് പഠിച്ചിരുന്ന സമയത്തായിരുന്നു സ്കൂളിലും കോളേജിലും പഠിച്ചിരുന്ന സമയത്തായിരുന്നു യോഗ ചെയ്തിട്ടുള്ളത് അപ്പോള് ശവാസനം ആണ് കുറച്ചുകൂടി കുറച്ച് ഈസി ആയിട്ടുള്ള ആസനമെന്ന് എനിക്ക് തോന്നി കാരണം നമുക്ക് എല്ലാം യോഗയിലെ എല്ലാം ഇത് പൊസിഷനല്ലെ ആസനമൊക്കെ ചെയ്തേന് ഏറ്റവും ലാസ്റ്റ് നമുക്ക് റസ്റ്റിങ് റെസ്റ്റെയ്യാന് പറ്റുന്നൊരാസനമാണ് ശവാസനം അപ്പോള് നമ്മുടെ ബെട് ബ്ലഡിന്റെ കൗണ്ട് കൗണ്ട് ലെവലും പിന്നെ ഹാര്ട്ടിടിപ്പും ഒക്കെ പള്സുമൊക്കെ നമ്മള് നോര്മല് ആവുന്നത് ഒരു ശവാസനം ചെയ്യുമ്പോഴാണ് അപ്പോള് ശവാസനം നമുക്കു കുറച്ചൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി കാരണം മൈന്റ് കുറച്ച് റിലാക്സ്സായി റിലാക്സ്സെയ്യാം യോഗ പൊതുവേ ചെയ്യുന്നത് മൈന്റ് റിലാക്സ്സെയ്യാന് പിന്നെ ഹെല്ത്തിന് നല്ലതാണ് പിന്നെ വെയിറ്റ് ലോസ് അതിനൊക്കെ യോഗ ചെയ്യുന്നത് നല്ലതാണ് അപ്പോള് അതുകൊണ്ട് ശവാസനം എനിക്ക് കുറച്ച് അങ്ങനെ ഞാന് ഒരുപാട് ഹെല്ത്തിയായിട്ടുള്ള ആളല്ല പക്ഷേ എനിക്ക് ആസനം ആ ഒരു ശവാസനം എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ശലഭാസനം കുറച്ച് വെറൈറ്റിയായിട്ട് കുറച്ച് ഡിഫ്രണ്ടായിട്ടെനിക്ക് ആ ഒരു പോസ് ആ ഒരു പൊസിഷന് എനിക്ക് അങ്ങനെ തോന്നി മറ്റുള്ള ആസനത്തിന്ന് വേറെ ഒരുപാട് ആസനങ്ങള് ചെയ്തിട്ടില്ല അപ്പോള് ആ ശലഭാസനം എനിക്ക് കുറച്ച് ഡിഫ്രണ്ടായിട്ട് കാരണം കുറച്ച് എന്ജോയ് കുറച്ച് ഫണ്ണായിട്ടങ്ങനെ ഫീലെയ്തോണ്ട് എനിക്ക് ശലഭാസനം കുറച്ച് ഇഷ്ടപ്പെട്ടു